ആ നമസ്കാരം ചേട്ടാ ഞാന് ഈ പതിനൊന്നരക്കുള്ള അമൃതയില് തിരുവനന്തപുരത്തേക്ക് പോവാൻ വേണ്ടീട്ടാണേ അപ്പൊൾ ഇവിടെ നമ്മുടെ പാലക്കാടെത്താൻ വേണ്ടീട്ട് ഉള്ള ഓട്ടോ വല്ലതും ഇപ്പ അവിടുണ്ടാവോ അതെ അതെ ഇന്നെന്നെയാണ് ഇന്നെന്നെയാണ് ആ ഒരു പതിനൊന്നരക്ക് പതിനൊന്നര നമുക്കൊരു പതിനൊന്ന് മണിയാവുമ്പേഴേക്കും അവിടെ എത്തണം അപ്പൊൾ ഓട്ടോ ഉണ്ടാകുവോ എങ്ങനെയാ ഞാനിവിടെ കൊടുങ്കര പുള്ളി അ നിങ്ങള് ഇവിടെ വന്നിട്ട് എന്നെ പിക്ക് ചെയ്യേണ്ട വരും ഇവിടെ വന്ന് പിക്ക് ചെയ്തിട്ട് അവിട കൊണ്ടു പോയി വിടണം ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തണം പതിനൊന്നരയ്ക്കാണ് ട്രെയിന് ഒരു പതിനൊന്ന് മണിയാവുമ്പോഴുക്കും നിങ്ങളിവിടെ എത്തണം അതെ അതെ അതെ അമൃത അമൃതയില് പോവാനാണ് തിരുവനന്തപുരത്തോട്ട് തിരുവനന്തപുരത്തോട്ട് ഇപ്പം രാത്രിയായതുകൊണ്ടേ സെയിഫായിട്ടുള്ള വണ്ടിയില് വേണ്ടേ പോവാൻ അതുകൊണ്ട് അപ്പൊൾ നിങ്ങടെ വണ്ടി ഉണ്ടാകുവോ ക്യാബ് ഉണ്ടാകുവോ ഓട്ടോ ഉണ്ടാകുവോന്ന് അറിയാൻ വേണ്ടീട്ട് വിളിച്ചതാണ് കിട്ടാൻ ആ കിട്ടോ വരുവല്ലോ അല്ലേ അങ്ങനെയാണെങ്കില് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എത്തിയാൽ മതി പതിനൊന്ന് മണിക്കെത്തിയാൽ ഒരു പതിനൊന്നര പതിനൊന്നരക്ക് എത്തില്ല അല്ലേ അതൊരു പത്തേ മുക്കാലാവുമ്പോ എത്തിയാൽ നമുക്കൊരു അര മണിക്കൂർ മതിയാവില്ലേ ഇവിടുന്നവിടെ എത്താൻ ശരി ശരി ശരി ചേട്ടനെന്നാൽ ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി ഞാനിപ്പോൾ ഈ വിളിച്ചില്ലേ ലാസ്റ്റിൽത്തെ ഒരു ടു സിക്സ് തുടങ്ങുന്ന അവസാനിക്കുന്ന നമ്പറ് അതെ അതെ അയിലോട്ട് വിളിച്ചാൽ മതി ഞാനൊരു പത്തേ മുക്കാല് ആവുമ്പഴേക്കും ആ ഓക്കെ നിക്ക ഞാൻ പത്തേ മുക്കാലാവുമ്പോഴേക്ക് ഒരുങ്ങി നിക്കാം ശരി ശരി ശരി ശരി ശരി വളരെ ഉപകാരം ശരി